ഹലോ ആ ടീച്ചറേ ആ ആ വംശി എങ്ങനെയുണ്ട് നമ്മുടെ ക്ലാസിലെ വംശി എങ്ങനെയുണ്ടെന്നറിയാനായിട്ട് വിളിച്ചതാണ് ആ ഹാ ആ ആ ആ അതെ എപ്പോഴും നോട്ടിയാണ് എപ്പോഴും അവന് മറ്റുള്ളവരെ ഉപദ്രവിക്കും ചാട്ടം ഓട്ടം ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളാണ് ക്ലാസില് ശ്രദ്ധിച്ചിരിക്കത്തില്ല ഇനിയിപ്പോള് എന്തുവാണ് ഞാന് പേരന്റ്സിനെ അവൻ്റെ അമ്മയെയൊക്കെ വിളിച്ച് പറഞ്ഞു ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് ആ അ ആ ഇങ്ങനെ മാറ്റിയിരുത്തി ഞാന് ചെറിയ ചെറിയ ശിക്ഷകളൊക്കെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് ഉം ആ ആ അവന് ഡാന്സിങ് ഡാന്സൊക്കെ ഭയങ്കരമിഷ്ടമാണ് നൃത്തമൊക്കെ ചെയ്യാന് ഭയങ്കരമിഷ്ടമാണ് അപ്പോള് അതൊക്കെ അങ്ങനെയൊക്കെയുള്ളൊരു ഇത് ഇതിലൊക്കെ നമുക്ക് തിരിച്ചുവിടാം എന്താണ് ആ ആ ആക്ടിവിറ്റീസൊക്കെ കൊടുക്കാം ആ ആ ആണ് ആ ആ ആ ഉം ഉം ആ ഇന്നലെ ഇതേ പോലെ ഓടിയും ചാടിയും പിന്നെ എങ്ങനെയോ അഭിനന്ദ് പിടിച്ചിവനെ തള്ളിയിട്ടൂ തലയൊക്കെ മൊഴച്ച് അവന് പിന്നെ തടവി ഉം ആ ഇന്നലെ ഇതുപോലെ ഓടിയും ചാടിയും പിന്നെ എങ്ങനെയോ അഭിനന്ദ് പിടിച്ചിവനെ തള്ളിയിട്ടൂ തലയൊക്കെ മുഴച്ച് അവന് പിന്നെ തടവിയൊക്കെ കൊടുത്ത് സോള്വാക്കി ഇങ്ങനെയൊക്കെ വിട്ടതാണ് ഉം

ആ ഹ മ് ഹ് ഉം

ആ പക്ഷേ പഠിക്കാന് വലിയ കുഴപ്പമില്ലെന്ന് തോന്നുന്നു അല്ലെ എഴുതിയൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ ഈ ഗുരുത്വക്കേടാണ് പാട് ബുദ്ധിമുട്ടായിട്ട് വന്നിരിക്കുന്നത് അടുത്തിരിക്കുന്ന കുട്ടികളെയും ശല്യപ്പെടുത്തും അവരെയും പഠിക്കാന് സമ്മതിക്കില്ല അവരുടെ പെന്സിലെടുത്ത് അവരുടെ ബുക്കെടുത്ത് പിന്നെ ബാഗെടുത്തെറിയുക ഇങ്ങനെയൊക്കെയുള്ള എല്ലാ പ്രശ്നങ്ങളുമുണ്ട് അവന്

ഏ ആ ആ ഹാ ബുക്കുകളൊന്നും സൂക്ഷിക്കുകയുമില്ല ബുക്കുകള് സൂക്ഷിക്കില്ല ടെക്സ്റ്റുകളെല്ലാം വലിച്ചുകീറുക ഇങ്ങനെയൊക്കെയുള്ള എല്ലാ പ്രശ്നങ്ങളുമുണ്ടിവന്

ആ ആ ആ അടുത്തിരിക്കുന്ന പിന്നെ പിന്നെ ഈ ബോര്ഡിലൊക്കെ എഴുതിപ്പിക്കുമ്പോഴും അടുത്ത് വിളിച്ചിരുത്തി എഴുതിപ്പിക്കുകയാണെങ്കില് നല്ലപോലെ എഴുതുകയും ചെയ്യും പഠിക്കുകയും ചെയ്യും ഇല്ലാത്ത സമയത്ത് അവന് വെറും അശ്രദ്ധയായിട്ടാണ് ഇരിക്കുന്നത് ക്ലാസില് ആ ആ ഉം ഉം ആ അവനെ ഈ അഭിനന്ദിൻ്റെ അടുത്തിരുത്തുകയും ചെയ്യാനൊക്കത്തില്ല അഭിനന്ദ് ഇവനുമായിട്ട് ഭയങ്കര പ്രശ്നമാണ് ഉം ഗേള്സിൻ്റെ ഗേള്സിൻ്റെ അടുത്തും ഇരുത്താനൊക്കത്തില്ല പെണ്കുട്ടികള്ക്കൊന്നും ഇവനെ കണ്ടുകൂടാ ആ അവര് ഈ പെണ്കുട്ടികളെല്ലാം വീട്ടില്ച്ചെന്ന് പറയും എന്നെ വംശിയുടെ കൂടെ ഒന്നിരുത്തിയെന്നും പറഞ്ഞുകൊണ്ട് ആ അലീഷയൊക്കെയാണെങ്കില് അലിഷയുടെ മമ്മി എന്നെ വിളിച്ച് അങ്ങനെ കംപ്ലെയിന്റ് പറഞ്ഞു ഇതുപോലെ അവൻ്റെ കൂടെയാണോ ഇരുത്തിയത് വംശിയുടെ കൂടെ ഇന്ന് എന്നെ ടീച്ചറ് ഇരുത്തിയതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അലീഷയുടെ മമ്മി എൻ്റെയടുത്ത് പരാതി പറഞ്ഞു ആ ഹ ഹ ആ ഇനി ഞാന് പല രീതിയിലും നോക്കി പിന്നെ ഒരോരോ വാക്കുകളും പറയുന്നത് ഒരു വൃത്തികേടായിട്ടുള്ള വാക്കുകളൊക്കെയും ഉപയോഗിക്കുന്നുണ്ട് അതൊക്കെയാണ് പ്രശ്നം ഉം ഉം എൻ്റെ കൂടെയാണ് നിര്ത്തിയിരിക്കുന്നത് ഇവനെ പിന്നെ ഈ പ്രശ്നം കാരണം എൻ്റെ കൂടെ നിര്ത്തിയിരിക്കുകയാണ് ഉം പഠിക്കാനൊക്കെ കുഴപ്പമില്ല മിടുക്കനാണ് എല്ലാ കാര്യങ്ങളും പറയാനുമൊക്കെ മിടുക്കനാണ് ഉം ഉം ഉം മാറുമായിരിക്കാം ആ ആഹാ ഹാ ആ ആ ശരി ഓക്കെ ഉം ഉം